എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒറോട്ടി കോഴിക്കറി ഭയങ്കര ഇഷ്ടമാരുന്നു അത് കൈ കൊണ്ടരച്ചിട്ട് ചുടും അടുപ്പിൽ തീയ്ണ്ടാക്കീട്ട് ഓട് വെച്ചിട്ട് ഇങ്ങനെ പലകൊണ്ട് വെച്ചിട്ട് അമർത്തീട്ട് ആ ഓട്ടിലിടും അപ്പോൾ ഓട്ടിൻടൊരു മണം അടുപ്പിൽ തീ കത്തിയൊരു മണം അത് നല്ലൊരു മണം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിച്ചാറും ഒറോട്ടിയും പിന്നെ അതുപോലെ കട്കലേം കടമ്പൂ കടല വേവിച്ചിട്ട് തീ കത്തിച്ചിട്ട് കടല വേവിക്കുക കട്ല വേവിച്ചിട്ട് അതിൽ അരി അരച്ചിട്ട് കട്ലലേടെ അത്രക്കുള്ള ഉണ്ട ആക്കും ഉണ്ടാക്കീട്ട് കട്ലക്കിടും കട്ലേക്കിട്ടിട്ട് അതുപോലന്നെ തേങ്ങ മുളക് അരച്ചിട്ട് ഈ കടമ്പും കട്ലേം വേവിച്ച അതിലേക്ക് ഇതും ചേർക്കും ചേർത്തിട്ട് അതെനിക്ക് ഭയങ്കരിഷ്ടമാണ് അതുപോലെ മുരിങ്ങാ ചപ്പല് കാരെ മുരിങ്ങാ പ്പൂ മുരിങ്ങാപ്പൂവും മുട്ടേം ഇട്ടിട്ട് വറവാക്കും അടുപ്പിൽ തീ കത്തിച്ചിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാചകൊണ്ടാക്കാന് അത് ഭയങ്കര താൽപര്യാ മുട്ട പരകാന് അതുപോലെ തന്നെ മീൻ കറി വെക്കാൻ ഭയങ്കര താൽപ്പര്യം പിന്നെ കോഴി കാച്ചാന് ഭയങ്കര താൽപ്പര്യം കോഴിക്കറി വെക്കാനും താൽപ്പര്യാന്ന് അത് പോലെ തന്നെ കട്മ്പ് അരി കൈ കൊണ്ടരച്ചിട്ട് ഉണ്ടാക്കും ഉണ്ടാക്കീട്ട് അടുപ്പിൽ തീയ്യാക്കീട്ട് അത്തിൽ വേവാവ്വെക്കും അട്ടിപ്പാത്രത്തിൽ അതെനിക്ക് ഭയങ്കര താൽപ്പര്യമുള്ള ജോലിയാന്ന് അതുപോലെ തന്നെ ചമ്മന്തി അരക്കാൻ ഭയങ്കരം താൽപര്യം അതുപോലെ ഒണക്ക് മീൻ അത് ഓട്ടിൽ തീ കത്തിച്ചിട്ട് ഓട് വെച്ചിട്ട് അതിലിട്ടിട്ട് വറത്തിട്ട് തേങ്ങ മുളക് അരച്ചിട്ട് ഈ ഒണക്ക മീൻ അതിൽ മിക്സാക്കീറ്റ് പൊടിച്ചിട്ടിട്ടിട്ട് മിക്സാക്കണം മിക്സാക്കീട്ട് കറി ചെപ്പല കറി ചെപ്പല ഇടണം അങ്ങനെ ഇതിടാന് അത് ആ ഒണക്ക് മീൻ ചമ്മന്തിണ്ടാക്കാന് എനിക്ക് ഭയങ്കര താൽപ്പര്യം അത്പോലെ തന്നെ മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാന് ഭയങ്കര താൽപ്പര്യം അതിന് ഉരുളക്കിഴങ്ങ് അതിട്ടിട്ട് ഒരു ബാജിയാക്കീട്ട് ഒരു ചമ്മന്തി പിന്നെ സാമ്പാറ് മസാല ദോശ അത് പ്ലേയ്റ്റിലിട്ടിട്ട് മക്കൾക്ക് കൊടുക്കാൻ നല്ല താൽപ്പര്യം കാണാനൊരു ഭംഗി അതുപോലെ തന്നെ മക്കൾക്ക് ഫ്രൈഡ്രൈസ് അത് ഉണ്ടാക്കി കൊടുക്കും അത് കുക്കിങ്ങാക്കാൻ ഭയങ്കര താൽപ്പര്യം അതുപോലെ ദോശ ദോശ അരി അരച്ചിട്ടെ തീ അടുപ്പിൽ തീ കത്തിച്ചിട്ട് വെറകെല്ലാം വെച്ച് തീ കത്തിച്ചിട്ട് അത്തിൽ ദോശ ചുട്ടിട്ട്

കൊടുക്കാനും ഭയങ്കര താൽപ്പര്യം അതുപോലെ പിന്നെ അങ്ങനെ എന്തെല്ലാം മീൻ കോഴി അങ്ങൻത്തെല്ലോം കറി വെക്കാനാന്ന് എനിക്ക് കൂടുതൽ താൽപ്പര്യം പച്ചക്കറി ചെർങ്ങനെ വർവെല്ല ഉണ്ടാക്കാന് ബീട്രൂട്ട് കാബേജ് പയറ് വർഗം അതുപോലെ വനില വെള്ളരിക്കാ അതുപോലത്തെല്ല സാധാരണേൽ ചെറിയ ചെറിയ പച്ചക്കറീയ വെണ്ടയ്ക്ക അതെല്ലാം കറി വെക്കാൻ ഭയങ്കര താൽപ്പര്യം വെണ്ടക്ക മുളകരച്ചിട്ട് മുളകും പുളി അരച്ചിട്ട് വെണ്ടക്ക മുറിച്ചിട്ടിട്ട് കറി വെക്കും അത് ഭയങ്കര താൽപ്പര്യാന്ന് എല്ലാവർക്കും ഇഷ്ടാന്ന് അങ്ങനെ കറി വെക്കുന്നത് പിന്നെ സോയാബീന് മസാലാക്കും അത് എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര താൽപ്പര്യാന്ന് അതുപോലെ ഓട്ടുപ്പഴ പച്ചരി അരച്ചിട്ട് ചോറും പച്ചരിയു ഇട്ടിട്ട് അരച്ചിട്ട് ഓട് അടുപ്പിൽ തീയ്യാക്കീട്ട് ഓട് വെച്ചിട്ട് അതിലൊഴിക്കും അതാണ് ഓട്ടുപ്പഴാ അതുണ്ടാക്കാനും എനിക്ക് ഭയങ്കര താൽപ്പര്യാന്ന്